കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവികുട്ടി എഴുതിയ അവരുടെ ആത്മകഥയായ എൻ്റെ കഥ എന്ന ബുക്കാണ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നി എൻ്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് തോന്നിയ ഒരു കാരണമാണ് അത് എനിക്ക് ഇഷ്ട്ടപ്പെട്ടില്ല അവരവരുടേതായ കുടുംബ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ നാലപ്പാട്ട് ക തറവാടിനെക്കുറിച്ചുള്ള കാര്യങ്ങള് മാത്രം പറഞ്ഞ് തുടങ്ങുമ്പോൾ എനിക്ക് എന്തോ അതെനിക്ക് പക്ഷെ അവരുടെ കുടുംബകാര്യം പറയാൻ വേണ്ടീട്ടാണോ ഇത് തുടങ്ങിയത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വായിച്ച് തുടങ്ങിയപ്പോൾ അത്രത്തോളം ആഴത്തിലായിരുന്നു അവരുടെ എഴുത്തുകളെന്ന് മനസ്സിലാക്കാൻ പറ്റി അവരുടെ എഴുത്തിൻ്റെ ശൈലി അവരുടെ സംസാര ശൈലി പിന്നെ നാലപ്പാട്ട് വീട് അവരുടെ അമ്മാവൻ അതിൻ്റെയൊക്കെ കാര്യങ്ങളവര് വളരെ വളരെ ആഴത്തിലായിരുന്നു അവരുടെ എഴുത്തുകളെല്ലാം നമുക്ക് പെട്ടന്ന് ആകർഷിക്കപ്പെടുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു മൂന്ന് പേജിലൊണ്ടായിരുന്ന എൻ്റെ അറിവ് പെട്ടന്ന് തന്നെ അത് മാറിക്കഴിഞ്ഞായിരുന്നു അത് വായിച്ച് തുടങ്ങിയപ്പോഴൊക്കെ വായിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രണയം അവരുടെ ആശുപത്രിക്കിടക്കയിലെ ജീവിതം പിന്നെ അവരുടെ പ്രണയത്തെ ആയിരുന്നു അവര് ഏറ്റവും കൂടുതൽ നഷ്ട്ടപ്പെടാം പക്ഷെ പ്രണയിക്കാതിരിക്കരുത് അങ്ങനെയൊക്കെയുള്ള അവരുടെ വാക്കുകള് അവരുടെ എഴുത്തുകള് വളരെ ഇഷ്ട്ടപ്പെടാൻ തുടങ്ങി അവരുടെ ശൈലി എനിക്ക് ഇഷ്ട്ടപ്പെട്ടു തുടങ്ങി അങ്ങനെയായിരുന്നു അതായിരുന്നു എൻ്റെ അതായത് ആദ്യം ഇഷ്ട്ടപ്പെട്ടില്ലാന്ന് തോന്നുകയും പക്ഷെ വായിച്ച് തുടങ്ങിയ ശേഷം വളരെ ഇഷ്ട്ടപ്പെടുകയും ചെയ്തൊരു ബുക്കായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് മാറാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ എഴുത്തിൻ്റെ ശൈലി ആയിരുന്നു എനിക്ക് ഏറ്റവും മാറാനുള്ള കാരണം